ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്താണ് വന്നത് ആ ഓക്കെ ആ എന്നത്തേക്കാണ് കല്യാണം തീരുമാനിച്ചിരിക്കുന്നത് ആ ചെറുക്കൻ എവിടുന്നാണ് കൊല്ലം കൊല്ലത്ത് എവിടെ ആ ആ ഓക്കെ എങ്ങനെ നല്ല ജോലിയുള്ള പയ്യനാണോ ഗൾഫിലാണ് അപ്പോൾ ഇവൻ നിങ്ങൾ കല്യാണം എങ്ങനെ എല്ലാവരെയും വിളിച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്താൻ തീരുമാനിച്ചോ അതോ കുടുംബക്കാർ മാത്രം ഓക്കെ ഇപ്പോൾ എങ്ങന അവർ സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടോ കൊടുക്കുന്നുണ്ടോ ഇപ്പം നിങ്ങളും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾ ഈ ന്യൂസ് ചാനൽ എല്ലാം കാണുന്നതാണല്ലോ ഇതിൻ്റെ പേരിലൊക്കെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പ് എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ നിങ്ങളും സ്ത്രീധനം ഒക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോഴും ഇതുപോലെ നിങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നവർ വിചാരിക്കില്ലേ അവരുടെ മക്കളും കൊടുക്കണമെന്ന് അതുകൊണ്ട് അവരൊക്കെ എന്ത് ചെയ്യും കടം പൈസ ഇല്ലാത്തവർ ആണെങ്കിൽ കടം വാങ്ങിച്ചിട്ടെങ്കിലും അവർ അങ്ങനെ ഒക്കെ ചെയ്യില്ലേ എന്താണ് അതിന് അല്ല അത് നിങ്ങളുടെ ഇഷ്ടം ആണ് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം ആണ് അത് അതിലൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല എന്നിരുന്നാലും നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം പിന്നെ എവിടെ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പള്ളിയിൽ വെച്ച് തന്നെ ആണോ ഓക്കെ അതിനെ കുറിച്ച് ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇപ്പോൾ

ആ അപ്പം ഇവർ മാര്യേജ് കൊ അത് ഇത് നമ്മുടെ രൂപതയിൽ നടത്തുന്ന മാര്യേജ് ക്ലാസിനൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരും ഓ എന്തായാലും ആ എന്താണ് മൂന്ന് ദിവസത്തെ ക്ലാസേ ഉള്ളൂ ഇതിന് മുമ്പായിട്ട് തന്നെ എന്തായാലും പള്ളിയിൽ വന്നൊന്ന് കാണാൻ പറയണം അച്ചനെ കാണാൻ പറയണം അപ്പോൾ അതിനെ കുറിച്ച് അതായത് രണ്ട് പേരെയും രണ്ട് പേരെയും വന്നൊന്ന് കാണാൻ പറയണം രണ്ട് പേരുടെ അടുത്തും അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ഇപ്പോൾ സമയം എപ്പോഴാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇങ്ങനെ രാവിലെയാണോ അതോ രാവിലെയാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ഈ കല്യാണം നടത്തുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും നല്ല പുണ്യ പ്രവൃത്തികൾ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ ആ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പിന്നെയൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയാവും ആ ഓക്കെ ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ